നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വന്നിരിക്കുന്ന കലാരൂപങ്ങൾ പരമ്പരാഗത കലാരൂപങ്ങൾ എന്ന് പറയനായിട്ട് ഒന്ന് രണ്ടെണ്ണം കൈകൊട്ടിക്കളി പിന്നെ തിരുവാതിര അങ്ങനെയുള്ള കലാരൂപങ്ങൾ ഇതെല്ലാം ഒരു കാലത്ത് തീരെ സദസ്സുകളിലേക്ക് ഉപയോഗിക്കാതെ നിന്നിരുന്ന കലാരൂപങ്ങളായിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം വീണ്ടും ജനങ്ങൾ എടുത്തു തുടങ്ങി അവരത് ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതു വഴി നമുക്ക് നമ്മുടെ മലയാള ഭാഷയുടെ തനിമ മെയിനായിട്ടും അതിനകത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ സദസ്സുകളിലേക്ക് വരുമ്പോൾ അത് ശ്രവിക്കുന്ന ജനങ്ങളിൽ മലയാളത്തിൻ്റെ ആ ഒരു തനിമയും പരമ്പരാഗതമായി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പല മൂല്യങ്ങളും അതിൽ നിന്ന് പുതിയ തലമുറക്ക് അതെല്ലാം ചെറിയ തോതിലാണെങ്കിലും അത് കൈമാറി വരുന്നുണ്ട് അതിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം പിന്നീട് ഇതിൻ്റെ സമകാലികമായിട്ടുള്ള പരിപാടികളെന്ന് പറയുന്നത് കൂടുതലും മിമിക്രി മോണോ ആക്ട് അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് അതവരുടെ കഴിവുകളെ കൂടുതൽ ഉണർത്തനുള്ളൊരു സദസ്സായിട്ടാണത് വിനിയോഗപ്പെടുത്തുന്നത്